ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വലിയ സാഹസികമായ യാത്ര എന്നതൊരു മഴക്കാലമാണ് അപ്പം നല്ല മഴ പെയ്യുന്നൊരു സമയത്ത് എൻ്റെ വീടിൻ്റടുത്തൊരു പുഴ ഉണ്ട് അപ്പോൾ ആ പൊ പുഴയിൽ റോട്ടിലേക്കെപ്പോഴും വെള്ളം കയറുവായിരുന്നു അപ്പോൾ ആ നല്ല വെള്ളം കയറിയ ആ സമയത്തെനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ ഹസ്ബന്റിൻ്റെ വീട്ടിലേക്ക് നിർബന്ധമായിട്ടും പോകണമായിരുന്നു അപ്പം ആ സമയത്ത് ആ ഒരു റോഡ് റോഡ് നമുക്കേതാണെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയാണന്ന് വെള്ളം കയറിയിട്ട് റോഡേതാണ് റോ കരയേതാണ് അല്ലെങ്കിൽ റോഡേതാണ് അല്ലെങ്കിൽ വയലേതാണ് എന്നുള്ള എന്നൊരു ബോധം പോലും നമുക്ക് ഉണ്ടാവില്ല ആ ഒരു സമയത്ത് റോഡറിയാതെ തന്നെ ആ വെള്ളത്തിലൂടെ തന്നെ വണ്ടിയോടിച്ചു പോയ ഒരനുഭവം എനിക്കത് വലിയൊരു സാഹസികമായൊരു യാത്ര അല്ലെങ്കിൽ ഒരു യാത്ര തന്നെയാണ് അത് സാഹസികമായ യാത്ര തന്നെയാണ് ഇപ്പം നമ്മള് വെള്ളത്തിലേക്ക് പോകുക നമ്മളുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണത് അപ്പം അതുകൊണ്ട് തന്നെ അതെനിക്ക് വലിയൊരു സാഹസികമായ യാത്ര തന്നെയായിരുന്നു ആ വെള്ളത്തിലൂടെയുള്ള പോക്ക്